ഹലോ ആ ഇത് ക്യാബ് ഏജൻസി അല്ലേ അപ്പൊ എനിക്ക് ഒന്ന് എറണാകുളം വരെ പോകാൻ വേണ്ടീട്ടായിരുന്നു ആ അതെ അതെ അതെ അപ്പോ ഞങ്ങൾക്ക് ചെറുത് അതിപ്പൊൾ നാലുപേർക്ക് സഞ്ചരിക്കാൻ പറ്റിയിട്ടുള്ള ഒരൂ ക്യാബിന് എത്ര രൂപ വരും ഇപ്പം ഒരു നാല് പേർക്ക് എന്ന് പറയുമ്പോൾ ഒരു നമുക്ക് സ്വിഫ്റ്റൊ അങ്ങനത്തെ എന്തേലും വണ്ടി മതി ആ ഓക്കെ ഓക്കെ എറണാകുളം വരെ ഓക്കേ അപ്പൊ ആ ആറായിരം രൂപ വരുമല്ലേ ഓക്കെ ഓക്കെ അപ്പം ആറ് പേർക്കാണെങ്കിൽ ഇപ്പം നമ്മളിപ്പം ഇന്നോവയും കാര്യങ്ങളൊക്കെ ആണെങ്കിലോ ഓ ഒൻപത് എട്ട് ഒൻപതല്ലേ ഓക്കെ ഓക്കെ അത് ഓരോ ഇതിനനുസരിച്ച് ഇരിക്കുല്ലോ ഓക്കെ ഓക്കെ ആ ആ അപ്പോ ചെറിയ കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മൾ ചിലപ്പൊൾ നാല് പേരായിരിക്കും ഉണ്ടാവുള്ളു അപ്പൊ നമുക്ക് ചെറിയ കാറ് മതി ഇനി അഥവാ ആറുപേര് ഉണ്ടെങ്കിലെന്നാണ് ഞാൻ അവർ ചിലപ്പം രണ്ടാളും കൂടെ എക്സ്ട്രാ വരുവാണെങ്കിൽ മാത്രം വല്യ വണ്ടി വിളിക്കാൻ വേണ്ടിട്ടായിരുന്നു അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുടുംബമാണ് അതായത് അമ്മ അച്ഛൻ അവരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ രണ്ട് കസിൻസും ഉണ്ടാരുന്നു അപ്പൊ അവരെ ചിലപ്പോഴെ വരുവൊള്ളു അപ്പൊ ഉറപ്പില്ല അതുകൊണ്ടാണ് ഞാൻ ആറ് പേരുടെയും കൂടെ ചോദിച്ചത് അഥവാ ഇല്ലെങ്കിൽ നമുക്ക് നാല് പേരുടെ മാത്രം മതി ഓക്കെ എന്നാ പോകണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാട്ടോ ഓക്കേ ഞാൻ വിളിച്ചോളാം ഞാൻ ഓക്കെ ഓക്കെ ഓക്കെ